ആ ഹലോ സെക്യൂരിറ്റി ഓഫീസറല്ലേ ഞാൻ ജി എമ്മാണ് സംസാരിക്കുന്നെ അപ്പോള് നമ്മുടെ കമ്പനിയുടെ ഒരു മാസ് ഡ്രില് നമ്മുടെ എല്ലാ ബ്രാഞ്ചുകളിലേയും സെക്യൂരിറ്റികളെ ചേർത്തുകൊണ്ട് ഒരു മാസ് ഡ്രില് നമുക്ക് നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോഴെല്ലാവരും അത് നമ്മള്ക്കൊരു ഞായറാഴ്ചദിവസം നോക്കി നമ്മുടെ ഹെഡ്ഡോഫിസിൻ്റെ മുൻവശത്തെ ഗ്രൗണ്ടില്ത്തന്നെ ആയിക്കോട്ടെ ഇവിടെയാകുമ്പോള് എല്ല എല്ലാവർക്കും അതിനുള്ള സൗകര്യങ്ങളുണ്ടായിരിക്കും എല്ലാവരും വെൽ ഡ്രെസ്ഡാരിക്കണം നീറ്റ് ആൻഡ് ക്ലിയറായിരിക്കണം എല്ലാവിധ പങ്ക്ചുവാലിറ്റി ഉണ്ടായിരിക്കണം വരുന്നവർ അപ്പോള് സെക്യൂരിറ്റി ആ അന്ന് അന്നത്തെ ദിവസം എല്ലാവരും നല്ല രീതിയിൽ ഒരുങ്ങി നമുക്കൊരു രെക്സെസൈസ് ഡ്രില്ലിങ്ങ് ഒരു പരേഡ് സംഘടിപ്പിക്കണ്ടതായിട്ടുണ്ട് ആ പരേഡിൽ എല്ലാവരേയും നോ മുൻനിർത്തി നിങ്ങളായിരിക്കും അതിൻ്റെ ലീഡിങ്ങ് ചെയ്യാൻ എല്ലാ എല്ലാ അതുപോലെ നമ്മളെ കമ്പനി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ ഏത് രീതിയിലാണ് പ്രിവൻറ്റിയ്യെണ്ടെന്നുള്ള രീതിയിൽ നമ്മളത് അന്ന് പറഞ്ഞുതരുന്നതായിരിക്കും അപ്പോള് ഇതെല്ലാ ബ്രാഞ്ചുകളിലേക്കും അറിയിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ

ഞായറാഴ്ച്ച സൺഡേ സൺഡേ ഇതൊരു ഒരു മണിക്കൂർ നേരത്തേക്കുള്ള ഒരു പ്രോഗ്രാമാണ് നിങ്ങളാ ഒരു മണിക്കൂര് നേരത്തേക്കു മാത്രം വന്ന് മീറ്റിങ്ങ് അറ്റെൻഡ് ചെയ്തിട്ട് പോവാം നമ്മുടെ കമ്പനീൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എങ്ങനെ ഉണ്ട് നമ്മുടെ സെക്കൂരിറ്റികളുടെ പെർഫോമൻസെന്നറിയാൻ വേണ്ടിയാണ് നമ്മളിത് ഇപ്പോഴുള്ള അടിയന്തരമായിട്ട് ചെയ്തുനോക്കുന്നത് ഇല്ല നിർബന്ധമായിട്ടും അന്നു തന്നെ വരണം അത് ജി എമ്മിൻ്റെ ഒരോഡ്രല്ലെ അപ്പോള് അത് നിങ്ങള് പാലിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ നിർബന്ധമായും വരണം ഇല്ലെങ്കിൽ അതിനു ശിക്ഷാനടപടി ഉണ്ടാകും ഓക്കെ എന്റടുത്തേക്ക് നേരിട്ടൊന്ന് വന്ന് ലീവ് ലെറ്റര് തക്കതായ കാരണങ്ങളായിരിക്കണം എമർജൻസി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രവേ ഹോസ്പിറ്റല് കേസൊക്കെ മാത്രവേ നമ്മളറ്റൻഡെയ്യത്തുള്ളൂ അങ്ങനുള്ളവർക്ക് മാത്രവേ നമ്മള് ലീവ് ലീവ് സാങ്ക്ഷനാകത്തുള്ളൂ ഓക്കേ അപ്പോള് അതുപോലെതന്നെ വേറെ വിഷയങ്ങളുണ്ട് അതോടുകൂടി ഈ പ്രോഗ്രാം പരേഡിൽ ഇവിടെ അറ്റൻഡെയ്തില്ലെങ്കിൽ ഒരു പണിഷ്മെൻറ്റെന്ന രീതിയിൽ നിങ്ങൾ മറ്റ് ദൂരെയുള്ള പല ബ്രാഞ്ചുണ്ട് നമ്മള്ക്ക് കേര കേരളത്തില്ത്തന്നെ ദൂരെ ദൂരം മറ്റു ജില്ലയിലോ കേരളത്തിന് വെളിയിൽ തന്നെയുള്ള ബ്രാഞ്ചിലോ പോയി നിങ്ങളീ ഡ്രിൽ പരേഡില് പങ്കെടുക്കേണ്ടതായിട്ട് ഉണ്ട്